മലയാള ഭാഷയുടെ സവിശേഷതകളെക്കുറിച്ച് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങളാണ് വ്യാകരണവും ഉച്ചാരണവും വ്യാകരണം കൂടാതെ ഒരു ഭാഷയ്ക്ക് നിലനിൽപ്പില്ല എന്നുള്ളതാണ് സത്യം ഷെക്സ്പിയറൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുക വ്യാകരണം എൻ്റെ പിന്നാലെ വരും എന്നു പറഞ്ഞു എന്നാണ് പറയുക അതുപോലെ വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ എഴുതുമ്പോൾ വ്യാകരണത്തെ അദ്ദേഹം ഒരിക്കലും കൂട്ടുപിടിച്ചിരുന്നില്ല എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷെ ഭാഷയുടെ ഒരു ശുദ്ധിയും ഭാഷയുടെ ഒരു ഘടനാപരമായ പൊലിമയുമൊക്കെ അതിൻ്റെ വ്യാകരണത്തിൽ തന്നെയാണ് അപ്പോൾ വ്യാകരണം കൂടാതെ ഭാഷ മുന്നോട്ടു പോവില്ല എന്നുള്ളതൊരു സത്യമാണ് അതുപോലെതന്നെ ഉച്ചാരണം ഉച്ചാരണം ഇപ്പം മലയാള ഭാഷയെ സംബന്ധിച്ചെടുത്തോളം ഉച്ചാരണം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം ഓരോ അക്ഷരത്തിനും ഓരോ സ്വരസ്ഥാനങ്ങൾ വരെ മലയാള ഭാഷയിൽ കൽപ്പിച്ചു കൊടുക്കപ്പെട്ടിട്ടുണ്ട് എ ആർ രാജരാജവർമ്മയെപ്പോലുള്ള കേരളപാണി എന്ന് എന്നറിയപ്പെടുന്ന എ ആർ രാജരാജവർമ്മയുടെ കേരളപാണി എന്ന കൃതിയിലൊക്കെ അതു വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട് ഇപ്പം ഇത്തരത്തിൽ ഭാഷയ്ക്ക് വ്യാകരണവും അതുപോലെ തന്നെ ഉച്ചാരണവും വളരെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് അതുപോലെതന്നെ ഭാഷയുടെ ഒരു മനോഹാരിതയ്ക്ക് അലങ്കാരങ്ങൾ വൃത്തം ഇതെല്ലാം ഒരു ഘടകമായി നിൽക്കുന്നുണ്ട് ആധുനിക കാലത്തേക്ക് എത്തുമ്പോൾ വൃത്തമൊന്നും വേണ്ട കവിതയ്ക്ക് വൃത്തം വേണ്ട എന്നുള്ളൊരു തലത്തിലേക്ക് ആളുകൾ എത്തുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്കെത്തിയ രൂപത്തിൽ ചില കവിതകളൊക്കെയാണ് ധാരാളമായി പുറത്തു വരുന്നത് പദ്യ രൂപത്തിലാണെങ്കിൽപ്പോലും അവയിൽ എന്താ വൃത്തബദ്ധമായിട്ടല്ല എഴുതപ്പെടുന്നത് എന്നുള്ളൊരു വാസ്തവമാണ് എങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇത് ഭാഷയുടെ അവിഭാജ്യഘടകങ്ങളായി നിലനിന്നവയാണ് വൃത്തം അതുപോലെതന്നെ ചില പ്രാസങ്ങൾ അതുപോലെതന്നെ അലങ്കാരപ്രയോഗങ്ങൾ ഇപ്പം അലങ്കാരപ്രയോഗങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് പദ്യത്തിൽ മാത്രമല്ല ഗദ്യത്തിലും വളരെ ധാരാളമായിട്ട് പ്രയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്